ഹലോ ഞാന് എനിക്ക് ഡെൽഹി വരെ ഒര് യാത്ര പോകാൻ ഉണ്ട് അതില് ഇൻഷുറൻസിൻ്റെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാൻ വിളിച്ചത് ഡെൽഹിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോകാനാണ് അതിന് എന്തെങ്കിലും ബെനഫിറ്റുണ്ടോ എന്നറിയാനാണ് വിളിച്ചത് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ വല്ലതും ഉണ്ടോ അ ഒറ്റയ്ക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒര് ഇത് ഉണ്ടോ എന്നറിയാനാണ് വിളിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസൊന്ന് അറിഞ്ഞാൽ കൊള്ളാം പിന്നെ എനിക്ക് പോകേണ്ടത് ഈ മാസം ഇരുപതാം തിയതിയാണ് പോകേണ്ടത് അപ്പോൾ ഇത് ബുക്ക് ചെയ്യുന്ന മുമ്പെ ഒന്നന്വേഷിക്കാമെന്ന് വിചാരിച്ചാണ് അന്വേഷിച്ചത് അതിൻ്റെ കൂട്തൽ വിവരങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് രാജധാനി എക്സ്പ്രസില് പോകുന്നതാണ് ഉചിതമെന്ന് വിചാരിക്കുന്നു ആ എസിയിലാണ് റിസർവേഷൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളു റിസർവേഷൻ ചെയ്യുന്നതിന് മുമ്പെ ഇതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കാനാണ് വിളിച്ചത് മാഡം അത് എന്നാ ഓൺലൈനില് ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഓൺലൈനില് ബുക്ക് ചെയ്ത് ഒരു കൺഫേർമ്മ് ആക്കിയാൽ ഞങ്ങളുടെ ഞങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസൊക്കെ പ്രത്യേകമായി തരു തരുമല്ലൊ അല്ലെ ഓക്കെ താങ്ക്യു